പുതിയ തലമുറ ഇംഗ്ലീഷ് മീഡിയം പഠനം പഠനം ഇംഗ്ലീഷ് മീഡിയം വിഭാഗത്തിലേക്ക് മാറിയത് കൊണ്ട് മലയാള ഭാഷ യുടെ പ്രാധാന്യം കുറഞ്ഞു വരികയാണ് അത് മുൻ തലമുറകളിലുള്ള ആളുകള് ഉള്ള എൻ്റെ അതെ തലമുറയിൽപെട്ട ആളുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നവര് മലയാളത്തിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അത് വളരെ മലയാളമാണ് കേരളത്തിൽ കൂടുതൽ ഉപയോഗിച്ച് കൊണ്ടിരുന്നതും പക്ഷേ ഇപ്പോൾ ഇപ്പഴത്തെ പുതിയ സാഹചര്യം അനുസരിച്ച് പുതിയ ആഗോള വത്കരണത്തിന്റെ ഭാഗമായിട്ട് മലയാളം മാത്രം പഠിച്ചാൽ പോര ഇംഗ്ലീഷ് പല കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് പോകാനും തുടങ്ങിയത് കൊണ്ട് ഇംഗ്ലീഷ് മലയാളത്തിൻ്റെ പ്രചാരണമൊക്കെ വളരെ പ്രചാരം വളരെ കുറഞ്ഞ് പോയി അത് അതിന് പ്രാധാന്യം കുറഞ്ഞ് പോയി അത് ഇപ്പം ഒരു സംരക്ഷിക്കപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അത് ഈ മലയാള ഭാഷ പരിചോ ജീവിപ്പിക്കുന്നതിനും അത് തുടർ ഇതേ തന്നെ രീതിയില് തടസങ്ങളൊന്നും കൂടാതെ അല്ലെങ്കിൽ വല്ലവർക്കും പ്രയോജന പ്രദമായ രീതിയില് മലയാള ഭാഷ അതിൻ്റെ ഉത്തര അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകാതെ കൊണ്ടു പോകുന്നതിന് വേണ്ടി പലവിധത്തിലുള്ള സംരഭങ്ങളെ പലവിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഇപ്പോൾ നടന്ന് വരുന്നുണ്ട് ഗവൺമെൻ്റാണെങ്കിൽ അത് മലയാള ഭാഷ യിലേക്ക് പല ഭാഷ മലയാളം ആക്കിയിട്ട് ഉണ്ട് മലയാളം അങ്ങനെ മലയാളത്തെ സംരക്ഷിക്കുവാനായിട്ട് ഗവൺമെൻ്റ് ശ്രമിക്കുന്നുണ്ട് അതുപോലെ മലയാളം അധ്യാപകര് എല്ലാം നന്നായിട്ട് മലയാളം മീഡിയം പഠിപ്പിക്കുന്ന അധ്യാപകര് വളരെ അതിൻ്റെ വളരെ പ്രാധാന്യത്തോടെ അതിൻ്റെ ആ ഉച്ചാരണ ശുദ്ധിയോടെയൊക്കെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എങ്കിലും പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പലർക്കും മലയാളം വായിക്കാൻ അറിയാമെങ്കിലും എഴുതാൻ അറിയത്തില്ലാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ട് അവരെയും കൂടെ പ്രത്യേക പാക്ക് ഒരു ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അവരെകുടെ പഠിപ്പിക്കാനായിട്ട് യുവ സ്കൂളുകളിലും അതുപോലെ പള്ളികൾ അനുബന്ധിച്ചുമുള്ള പല പ്രവർത്തനങ്ങളിലും ഒക്കെ ഇങ്ങനെ നടത്തുന്നുണ്ട് അവരെ പ്രത്യേ വെക്കേഷൻ സമയത്ത് അല്ലെങ്കിൽ ഒഴിവു ദിവസങ്ങളിൽ അവരെ പ്രത്യേകം വിളിച്ചിരുത്തി അവരുടെ മലയാള ഭാഷ പഠിക്കുവാനും എഴുതുവാനൊക്കെ ഉള്ള ഉള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതുപോലെ ഈ ഭാഷാ പുനരുദ്ധാനിക്കുന്ന അത് എ ഐ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പോലുള്ള സംവിധാനങ്ങളും ഇപ്പോൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് മലയാള അതിലേക്ക് മലയാള ലിപികളൊക്കെ ഒരു വാക്കുകൾ പോലും കുറഞ്ഞ് പോകാതെ എല്ലാ വിട്ട് പോകാതെ എല്ലാ വാക്കുകളും ഇതിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി പല സ്ലാങ്ങിലുള്ള മലയാള വാക്കുകളും ഭാഷ പ്രയോഗങ്ങളും ഒക്കെ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് വളരെ പരിശ്രമിച്ച് ഗവൺമെൻ്റ് സ്ഥലത്തിൽ തന്നെ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചില സന്നദ്ധ സംഘടനകൾ ഇതിൻ്റെ ലിപികൾ ക്കെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ലൈബ്രറി പോലുള്ള പ്രസ്ഥാനങ്ങള് ഈ പുസ്തകങ്ങളൊക്കെ ആവശ്യമായ പുസ്തകങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് കൊണ്ട് മറ്റുള്ളവരു പഠനം വായിക്കുവാനായിട്ടൊക്കെ പരിശീലിക്കുന്നുണ്ട് അത് വഴിയായി മലയാള സാഹിത്യം കുറച്ചും കൂടെ പ്രചാരം നേടുന്നതിനും അതിന് പ്രാധാന്യം കുറഞ്ഞു പോകാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ വിധത്തിലുള്ള സഹായം അവരും ചെയ്യുന്നുണ്ട്